ഇപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ടാപ് വെള്ളം ലഭിക്കാറുണ്ടോ എന്നാണ് ടാപ് വെള്ളം ലഭിച്ചാൽ ജീവിതം എങ്ങനെ മാറും പിന്നെ ലഭിക്കുന്ന വെള്ളം ശുദ്ധമാണോ എന്നതാണ് ചോദ്യം അപ്പോൾ ഞാൻ ഇതിന് ഉത്തരം പറയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ടാപ് വെള്ളം ലഭിക്കാറുണ്ട് ടാപ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് കിണറിലുള്ള വെള്ളം മോട്ടറുപയോഗിച്ച് ടാങ്കിലേക്ക് ആക്കി ടാങ്കിൽ നിന്ന് നമ്മുടെ വീടുകളിലേക്കുള്ള അല്ലെങ്കിൽ സ്കൂള്കൾലൊക്കെയാണെങ്കിൽ കോളേജുകളിലാണെങ്കിലും ടാങ്കിൽ നിന്ന് പൈപ്പിലേക്ക് വെള്ളം വന്ന് പൈപ്പിലെ വെള്ളമാണ് ജനങ്ങൾ ഉപയോഗിക്കുന്നത് ടാപ്പിലെ വെള്ളം വരുന്നതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിണറ്റിൽ നിന്നും വെള്ളം ബക്കറ്റ് കൊണ്ട് കോരണ്ട ആവിശ്യം ഇല്ല ടാപ്പിൽ ഓൾറെഡീ പെട്ടെന്ന് തന്നെ നമുക്ക് എളുത്തിൽ ടാപ് ഓൺ ചെയ്താൽ തന്നെ വെള്ളം നമുക്ക് ലഭിക്കും ബക്കെറ്റ് യൂസ് ചെയ്ത് ബക്കറ്റ് ഉപയോഗിച്ച് നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ ചിലപ്പം അതിൽ മാലിന്യമോ കരടോ അഴുക്കോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ ടാപ്പിലേക്ക് നമ്മൾ വെള്ളം കൊണ്ടു വരുമ്പോൾ അത് ഫിൽറ്റ്റാക്കിയിട്ടാണ് വരിക പിന്നേ നമ്മൾ കുടിക്കാനുള്ള കുടി വെള്ളം നമ്മൾ ഡബിൾ ഫിൽറ്റ്റ് വച്ച് അതായത് ടാപ് വാട്ടർ ജസ്റ്റ് വൺ ടൈം ഒരു തവണ മാത്രമായിരിക്കും ഫിൽറ്റർ ചെയ്തിട്ട് ഉണ്ടാവുക പക്ഷെ നമ്മൾ കുടിക്കുന്ന വെള്ളം സെക്കൻട് രണ്ടാം തവണ ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അത് എല്ലാവർക്കും കുടിക്കാൻ പാകത്തിനാവും ആ വെള്ളം ആ വെള്ളം നമ്മുടെ ആരോഗ്യത്തിനും നല്ലതായരിക്കും ടാപ്പ് വച്ചതിന് ശേഷം ടാപ് ഉപകുയോഗിക്കുക ഉപയോഗിച്ചതിന് ശേഷം എല്ലാവരുടെയും ജീവിതം കുറച്ചു കൂടി എളുപ്പമായിട്ടുണ്ട് കാരണം അധികം സമയം പാഴാവില്ല വെള്ളം കിണറ്റിൽ നിന്ന് എടുക്കാനായിട്ട് കാരണം മോട്ടർ ഉപയോഗിച്ച് അതായത് വൈദ്യുതി ഉപയോഗിച്ച് മോട്ട്റ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നു ആ മോട്ടറിലൂടെ ടാങ്കിലേക്ക് വെള്ളം വന്ന് അവിടെ വെള്ളത്തിനെ ശേഖരിക്കുന്നു പിന്നീട് നമ്മുടെ ആവിശ്യാന്സരണം നമ്മൾ പൈപ്പ്കൾ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വെള്ളം ലഭിക്കുന്നു നല്ല വെള്ളം നമുക്ക് ലഭിക്കുന്നു അപ്പോൾ ടാപ്പുകൾ വളരേ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് നംക്ക് നല്ല വെള്ളം യൂസ് ചെയ്യാൻ അതായത് നമുക്ക് പാത്രം കഴുകാനായാലും കുളിയ്ക്കാനായലും തുണികൾ കഴുകാനായാലും നമ്മള് ടാപ്പിലെ വെള്ളം യൂസ്സ് ചെയ്യുന്നു പിന്നെ ഇപ്പോൾ കുടിക്കാനാണെങ്കിൽ നമ്മൾ വേറെ ഒരു ഫിൽറ്റ്റും കൂടി നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് കുടിക്കാൻ പാകത്തിന് കുറച്ചുംകൂടിയും ഹെൽദി ആയിട്ട് ആരോഗ്യത്തിന് നല്ലതായ ബാക്റ്റീര്യയും വേറെ അഴുക്കും മാലിന്യവുമൊന്നും ഇല്ലാണ്ട് നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് കിട്ടുന്നു അപ്പോൾ ടാപ്പ് വളരെ ഉപകാരപ്രദമായ ഒരു വസ്തുവാണ്